ആ ഞാൻ വയനാട്ടിൽ നിന്ന് ആയിരുന്നേ വിളിക്കുന്നത് ഞങ്ങൾ ഒരു വൺ മന്തിനുള്ളിൽ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു

അവിടെ പ്ലേസ് അഡ്വഞ്ചർ പ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ

ആ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തുതരുമോ എല്ലാം ആ പിന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ

ആ ബഡ്ജറ്റ് സീൻ ഇല്ല ആ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി ഉണ്ടോ ആ ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഞങ്ങളൊരു പന്ത്രണ്ട് പേരോളം ഉണ്ടാവും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ആ നല്ല ഫുഡ് ആയിരിക്കും അല്ലേ

എങ്ങനെ നിങ്ങൾ തന്നെയാണോ ക്യാബ് ബുക്ക് ചെയ്തുതരുന്നത് ഒക്കെ

ആ ഓക്കെ

ആ ഓക്കെ ഞാൻ വിളിക്കാം ഒര് രണ്ട് ദിവസത്തിനുള്ളിൽ ആ വിളിക്കാം